ചെടികൾ വളർത്താൻ ഞങ്ങളുടെ വീട്ടില് ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ ചുമന്ന മണ്ണ് എന്ന് വേണേൽ പറയാം അതായത് ചെറിയ പശ പശയോട് കൂടിയതും എന്നാൽ ഒരു ബ്ലാക്കും കൂടെ ചേർന്ന ഒരു മണ്ണാണ് ഇവടെ കാണുന്നത് സ്ഥിര ഒരു ശൈലി അതിൻ്റെ ഒരു ശൈലിയാണ് ഇവിടെ കാണുന്നത് ചില ചില ചെടികൾ പിടിക്കും ഈ മണ്ണിനകത്ത് തന്നെ ചിലതുങ്ങൽ പിടിക്കുകയില്ല പിന്നെ വളം എന്ന് പറയനായിട്ട് ചിലപ്പോൾ ചാണകപ്പൊടിയായിട്ടോ ചാരം ഈ മൊട്ടത്തോട് കാപ്പി മട്ട് അങ്ങനെയുള്ള നമ്മുടെ വീട്ടില് ഉപയോഗിക്കുന്ന ചെറിയ വേസ്റ്റുകൾ അങ്ങനെയുള്ള വളം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആട്ടും ആട്ടുംകാട്ടമൊക്കെ അങ്ങനെയുള്ള മാത്രമാണ് നമ്മള് ഇപ്പോൾ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ പുറത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ല